ഞാനൊരു സ്റ്റഡി ടേബിള് അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അത് ഭയ് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് യൂസർ ഫ്രണ്ട്ലിയാണ് ഇപ്പോൾ നമുക്ക് എക്സാം എഴുതാൻ ആയാലും നമുക്ക് അത് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റബിളാണ് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഇപ്പോൾ ലാപ്ടോപ്പ് വെക്കുന്ന ടേബിളായിട്ടും അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ സ്റ്റഡി ടേബിളായിട്ടും ഇപ്പം അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതേപോലെ ഇതിൻ്റെ ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഒരു ചെറിയ ഒരു കുട്ടി മുതൽ വലിയ ഒരാള് വരെ അവരുടെ ഹൈറ്റിന് അനുസരിച്ച് ചെറിയ കുട്ടിയാണെങ്കിൽ ചെറിയ കസേരയിൽ ഇരുന്നിട്ട് ആ കുട്ടിയുടെ ലെവലനുസരിച്ച് അങ്ങനെയുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ഒരു വലിയ ആള് ആണെങ്കിലും ടേബിളിൽ ഇരിക്കുന്നതാണെങ്കിലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ ആ പേഴ്സണിന്റെ ലെവലിന് അനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് അതിൻ്റെ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് അതേപോലെ ഇതിൻ്റെ ഇതിൻ്റെ സൈഡിലായിട്ട് ലാമ്പ് വെക്കാനുള്ള സൗകര്യം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ടു തന്നെ നമുക്ക് ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ പവർ ഓഫ് ആണെങ്കിൽ നമുക്ക് ലാമ്പ് ലൈറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇത് തരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടിയുണ്ട് അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ റൂമിൽ പോയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ ബോട്ടിൽ കീപ്പ് ചെയ്യാനുള്ള സ്ഥലത്ത് നമുക്ക് വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് വളരെയധികം സഹായകരമായി മാറുന്നുണ്ട് അതേപോലെ അതിൻ്റെ താഴെയായിട്ട് ഡ്രോവറുണ്ട് അതായത് നമുക്ക് നമ്മുടെ ഇപ്പോൾ പെന്ന് പെൻസിൽ അങ്ങനെയുള്ള സ്കെയില് റബ്ബർ അങ്ങനെയുള്ള സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരു ബോക്സ് കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ടു തന്നെ നമുക്ക് നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ അതിൽ വയ്ക്കാവുന്നതാണ് വേണമെങ്കിൽ നമുടെ മൊബൈൽ ഫോണ് വരെ അതിൽ വയ്ക്കാനുള്ള സൗകര്യം ഉണ്ട് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റബിളാണ് അതേപോലെ ഇതിൻ്റെ സ്ലോപ്പും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് സ്ട്രൈറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ കുറച്ച് സ്ലോപ്പും ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇതിൽ സാധനങ്ങൾ കീപ്പ് ചെയ്യാനുള്ള സ്ഥലം സെപ്പറേറ്റ് ഉണ്ട് അതായത് വാട്ടർ ബോട്ടിൽ വെയ്ക്കാൻ ഒരു സ്ഥലമുണ്ട് നമ്മുടെ പെൻസിൽ പെന്ന് അങ്ങനെയുള്ള ആക്സസറീസ് വയ്ക്കാൻ വേണ്ടീട്ട് അടിയിൽ ഒരു സാധനമുണ്ട് അങ്ങനെയെല്ലാം അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാന്നെങ്കിൽ വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ് അതായത് നമുക്ക് നമ്മുടെ പല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഇതിൻ്റെ വലുപ്പം കൂട്ടിയും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നല്ലൊരു പ്രോഡക്ണ്റ്റാണ് അതേപോലെ ഇതിൻ്റെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് പ്ലാസ്റ്റിക് ഫൈബർ ആ ഒരു മിക്സിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടു തന്നെ ഇപ്പോൾ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ വെയ്റ്റ് ഇത് ലെസ് വെയിറ്റാണ് അതുകൊണ്ട് നമുക്ക് എവിടേക്കും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ് അതായത് ഇവൻ ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും ഇതിനെ ക്യാരി ചെയ്ത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റി നിർത്താൻ പറ്റാവുന്നതാണ് അതേപോലെ ഇത് ലാസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് മടക്കി വയ്ക്കാവുന്നതും ആണ് അതുകൊണ്ട് ഇത് സ്പേസ് ലാഭിക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതായത് ഇതിനൊരു സപ്പറേറ്റ് സ്പേസ് ആവശ്യമില്ല ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്ത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പോവാനും ഹെല്പ്ഫുള്ളാണ് അതേപോലെ ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്നു പറയുന്നത് പ്ലാസ്റ്റിക് ഫൈബർ അങ്ങനെ അങ്ങനെയുള്ള മിക്സ് ആയതുകൊണ്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതായത് ഗ്ലാസും മറ്റു ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വെക്കുമ്പോൾ പൊട്ടും ഉള്ള ഇതും പിന്നെ അതേപോലെ വെയിറ്റ് കൂടാനും ചാൻസുണ്ട് ഇതിങ്ങനെ പിന്നെ പ്ലാസ്റ്റിക് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ വെയ്ക്കാവുന്നതാണ്